ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയൊര് വണ്ടിയായിട്ടാണ് എനിക്ക് തീവണ്ടീനെ തോന്നിയിട്ടുള്ളത് പിന്നേ ഒരേ സമയം തന്നെ ഒര്പാട് പേർക്ക് പോകാനൊക്കെ കഴിയുന്നൊരു വണ്ടിയാണ് അത് അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് പിന്നേ മുന്നിലാണതിൻ്റെ എഞ്ചിനുകളൊക്കെ വരുന്നത് അതാണ് ബാക്കിയുള്ള കമ്പാട്ട്മെൻടുകളക്കെ നയിക്കുന്നത് പിന്നേ പണ്ട് തീവണ്ടികൾക്ക് ഡീസല് പെട്രോള് എന്നിങ്ങനെയുള്ള ഇന്ധനങ്ങള് ഇന്ധനങ്ങളുപയോഗിച്ചാണ് പോയിരുന്നത് പക്ഷേ അതിനകത്ത് തന്നെ കുറെ പുക മലിനീകരണങ്ങളും ശബ്ദ് മലിനീകിരണങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി ഉപയോഗിച്ചാണ് തീവണ്ടി യാത്ര ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്ത് തന്നെ ശബ്ദ മലികി ശബ്ദ് മലിനീകരണം പുക മലിനീകരണം ഒന്നും ഒക്കെ കുറവാണ് പിന്നെ തീവണ്ടിയേ തന്നെ നമുക്ക് നമുക്കറിയാം കുറെ കംപാർട്ട്മെന്റുകളുണ്ട് അതിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ളതൊക്കെയുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ സർക്കാർ വന്ദേ ഭാരതൊക്കെ ഒരുക്കിത്തന്ന് അത് നമുക്ക് വിമാന യാത്ര പോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് പിന്നേ അത്പോലെ തന്നെയാണ് മെട്രോയിലും അത് നമുക്ക് നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു യാത്ര തന്നെയാണ് നൽകുന്നത് പിന്നേ തീവണ്ടിക്കായിട്ട് നമുക്കറിയാം ട്രാക്കിൽ കൂടെ മാത്രമാണ് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു തീവണ്ടീൻ്റെ പ്രത്യേകതകളായിട്ട് പറയാൻ കഴിയുകയുള്ളു